നിങ്ങളിത് കാണുക ഈ ഭൂഗോളത്തിൽ വൈ ദിസ് മാൻ കോൾ ജീനിയസ് ഈ കമൻട്രിയാണ് എന്നെ ഏറ്റവും കൂടുതൽ കോരിത്തരിപ്പിച്ച ഒരു കമൻട്രി ഇത് ഒരു സ്പോർട്സിനെ ബന്ധപ്പെട്ടാണ് ഒരു കായികപരമായി ബന്ധപ്പെട്ട ഒരു കമൻട്രിയാണ് കമൻട്രി പറഞ്ഞത് ഷൈജു ദാമോദരൻ ആണ് ഷൈജു ദാമോദരനെന്നു പറയുന്നത് മലയാളത്തിലെ അതിഗംഭിരമായി സ്പോർട്സ് കമന്ട്രി പറയുന്ന ഒരു അദ്ദേഹമാണ് ഇദ്ദേഹം ആരെക്കുറിച്ചാണ് പറഞ്ഞേന്ന് പറഞ്ഞാൽ റൊണാൾഡോ എന്ന് പറയുന്ന ഫുട് ബോൾ കളിക്കാരൻ ഒരു ഗോൾ അടിച്ചപ്പോൾ പറഞ്ഞെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്പോർട്സ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കോരിത്തരിപ്പുണ്ടാകുന്നത് നമ്മുക്കിഷ്ടപ്പെടുന്ന ഫുട് ബോളർമാരായ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി നെയ്മർ എന്നിവർ ഗോളടിക്കുമ്പോഴാണ് നമ്മള്ക്ക് ഇഷ്ടപ്പെട്ട ടീമും ആ ടീമിൽ ഇഷ്ടപ്പെട്ട കായികതാരവും ഗോളടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നാ സന്തോഷം ആനന്ദം ആ കോരിത്തരിപ്പ് രോമാഞ്ചം അത് വളരെ വലുതാണ് അതുപോലെ തന്നെ എനിക്കീ ആനന്ദകരം രോമാഞ്ചം തരുന്നതും ഞാൻ ഫുട് ബോൾ കളിക്കുമ്പോൾ ഞാൻ ഗോളടിക്കുമ്പോളാണ് ഒരു ടീം കളിതോറ്റ് അവസാനനിമിഷം തോറ്റ് തോല്ക്കാറാകുമ്പോൾ ഒരു സമനിലഗോളിനു വേണ്ടി നമ്മൾ കിടഞ്ഞ് പരിശ്രമിക്കുമ്പോൾ സഹതാരത്തിൻ്റെ പാസ്സിൽനിന്ന് നമ്മൾ ഗോളടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ രോമാഞ്ചം സന്തോഷം അതാണെനിക്കേറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് എനിക്ക് രോമാഞ്ചം കയറുന്നു അപ്പോഴാണ് എൻ്റെ എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നെ നെയിമെറോ റൊണാൾഡോയോ മെസിയോ ഗോളടിക്കുമ്പോൾ അല്ലെ സ സച്ചിനോ കോഹിലിയോ സിക്സറടിക്കുമ്പോളും അല്ലെങ്കിൽ ഞാൻ ഫുട് ബോൾ കളിക്കുമ്പോൾ ഗോളടിക്കുമ്പോളോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഡിഫെൻഡർ നടത്തുമ്പോളോ അല്ലെങ്കിൽ ഞാനൊരു സിക്സടിക്കുമ്പോളോ ഒരു ബോൾ ഫീൽഡീയുമ്പോളോ ഉണ്ടാകുന്ന ആ കോരിത്തരിപ്പ് വളരെ സന്തോഷം തരുന്നെതാണ് അതാണ് എൻ്റെ കോരിത്തരിപ്പ് അതാണ് എൻ്റെ രോമാഞ്ചം